ഹലോ മലബാർ റെസ്റ്റോറൻ്റ് അല്ലേ അവിടെ ഇന്ന് എന്താണ് സ്പെഷ്യലുള്ളത് ആ ഓക്കേ ഓക്കേ ആ അപ്പം അതിനെത്ര റെയ്റ്റ് വരും നമുക്കൊരു കുറച്ച് വേണമായിരുന്നു ഒരു രണ്ടു മൂന്ന് പേർക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളിവിടുത്തേക്കു ഡെലിവറി ചെയ്യുമോ അതോ ഞങ്ങളവിടെ വന്നു മേടിക്കണോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓക്കേ ഓക്കേ ബിരിയാണിയാണ് അവിടുത്തെ സ്പെഷ്യൽ അല്ലേ അതിന് സാലഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ ഓക്കേ ഓക്കേ ഞങ്ങൾ ഇത് ഈ ആപ്പിൽ വിളിച്ച് ബുക്ക് ചെയ്യുകയാണോ അതോ അല്ലാണ്ട് നേരിട്ട് വരണോ എങ്ങനെയാണ് വേണ്ടത് ഓൺലൈൻ ചെയ്യാനാണോ ആ ഓക്കേ ഓക്കേ ഓൺലൈൻ ചെയ്യാൻ അല്ലെ അപ്പം അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകുമോ ഇന്നത്തെ സ്പെഷ്യലെന്താണെന്ന് ആ ഓക്കേ ആ എന്നാൽ ഞാൻ ഈ ആപ്പിൽ കയറി ബുക്ക് ചെയ്യാം ആദ്യം നമ്പറടിച്ചിട്ടല്ലേ ലോഗിൻ ചെയ്യേണ്ടത് ആ ഓക്കേ ആ ചെയ്യാം ചെയ്യാം ആ എന്നാൽ ഓർഡർ ചെയ്യട്ടെ ഞാൻ ഇവിടേയ്ക്ക് കൊണ്ടുത്തരില്ലേ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ പനവല്ലിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ആ ഓക്കേ ഓക്കേ എന്നാൽ ഞാൻ ഓർഡർ ചെയ്യട്ടെ